പോളിയോയിൽനിന്ന് കുട്ടികളെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം സമൂഹത്തിനുള്ളത് കൊണ്ട് തന്നെ ഗ്രാമത്തിലെ ആളുകളെ കുട്ടികൾ ജനിക്കുമ്പോൾ തന്നെ പോളിയോ വാക്സിനേഷൻ എടുക്കുകയാണ് പതിവ് ജനിക്കുമ്പോൾ എടുക്കുന്നുണ്ട് രണ്ട് മാസം കഴിയുമ്പോൾ അറ് മാസം കഴിയുമ്പോൾ ഒരു വയസ്സകുമ്പോൾ ഒന്നര വയസ്സകുമ്പം രണ്ട് വയസ്സകുമ്പോൾ അങ്ങനെ ഒരു ഏകദേശം ഒരു അഞ്ച് വയസ്സോളം കുട്ടികൾക്ക് ആവശ്യാനുസരണം പോളിയോ വാക്സിനുകൾ എടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാ എനിക്ക് തോന്നുന്നത് എനിക്ക് അത്രയും ഗ്രാഹ്യം ഇല്ലെങ്കിൽ പോലും എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് ആ ഗ്രാമത്തിലെ ആളുകൾ ഇത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധയോട് കൂടിയാണ് പരിഗണിക്കുന്നത് കാരണം അവരുടെ കുട്ടികൾ ഒരിക്കലും നഷ്ടപ്പെട്ട് പോകുവാൻ രോഗികളായിത്തീരാൻ അവർ ആഗ്രഹിക്കുന്നില്ലല്ലോ അപ്പം ഗ്രാമത്തിലെ ആളുകൾ കൂടുതലായിട്ടും വൈദ്യശാസ്ത്രത്തോട് വിധേയപ്പെട്ടാണ് നിൽക്കുന്നത് അവർ പരിപൂർണ്ണമായും വൈദ്യരെയും അതുപോലെത്തന്നെ അവിടെയുള്ള ആളുകളെയും വിശ്വസിച്ചാണ് ആശുപത്രികളിലേക്ക് കടന്ന് ചെല്ലുന്നത് പക്ഷെ ആ ആശുപത്രികൾ ആശുപത്രിക്കാർ ഇവരോട് പെരുമാറുന്ന ശൈലിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് കാരണം ബില്ല് പോലെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒത്തിരി ഞെട്ടിത്തിരിപ്പോടെ നിൽക്കുന്ന മാതാപിതാക്കളെ കാണുമ്പോൾ ഏറെ വേദനാജനകമായി തോന്നാറുണ്ട് കാരണം ഗ്രാമത്തിലെ ആളുകൾ താരതമ്യേന താരതമ്യേന സാമ്പത്തികമായി ഞെരുകിക്കഴിയുന്നവരാണെന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെയും പോളിയോയിൽനിന്ന് കുട്ടികളെ സംരക്ഷിക്കുവാൻ അവർ പൂർണ്ണമായും ശ്രമിക്കും കാരണം അവരുടെ കുഞ്ഞുങ്ങൾ ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും പുരോഗമന രീതിയിലും വളരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പോളിയോയിൽനിന്ന് കുട്ടികളെ രക്ഷിക്കാൻ ഗ്രാമത്തിലെ ആളുകൾ നല്ല രീതികളിൽ തന്നെ പരിശ്രമിക്കുന്നുണ്ട്